ആ വരൂ ഈ വീട് വേണം പറഞ്ഞിട്ടുണ്ടാരുന്നില്ലേ എങ്ങനെയുള്ള വീടാണ് നോക്കുന്നത് ആ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ നിങ്ങക്കിപ്പോൾ ഞാൻ എൻ്റെല് പ്രോപ്പർട്ടി കൈയ്യിലുള്ളതെന്നു വെച്ചാൽ അതെ ഇപ്പോൾ ഒരു മൂന്നാലു പ്രോപ്പർട്ടിയാണിപ്പോൾ കൈയ്യിലുള്ളത് ഇപ്പം നിലവില് ഇള്ളത് മൂന്നാലു പ്രോപ്പർട്ടീസ് ആണിപ്പോൾ നിലവില് ഉള്ളത് ഓക്കെ ഒന്ന് ടൗൺ ഏരിയയിലുണ്ട് അതേപോലെ കുറച്ച് വില്ലേജ് അങ്ങോട്ട് മാറിയിട്ടുള്ള ഒരു രണ്ടു മൂന്നു പ്രോപ്പർട്ടീസ് ഓക്കെ റൈറ്റ് ടൗൺ ഏരിയയില് ഓക്കെ ടൗൺ ഏരിയയിൽ ഒരു രണ്ടു മൂന്നു പ്രോപ്പർട്ടിയാണുള്ളത് ഓക്കെ നമുക്കിപ്പോൾ എങ്ങനെയാണ് പഴയ മോഡൽ വീട് വേണോ അതോ പുതിയ മോഡൽ എങ്ങനെയുള്ള വീടാണ് നോക്കുന്നത് നോക്കുന്നതല്ലേ ഓക്കെ അപ്പോൾ എത്ര റൂമ് വേണം ആ ഉം റേറ്റ് ഇല്ലേ ആ റേറ്റ് റേറ്റ് അതെങ്ങനെയാണ് സ്ഥലം നോക്കുന്നുണ്ടോ കൂടെ കുറച്ച് സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും കുറച്ചു സ്ഥലവും കൂടിയാണോ അതോ വീട് മാത്രം മതിയോ വീട് വീട് മാത്രമായിട്ടൊരു പതിനാല് ലക്ഷം രൂപ സംതിങ് വരുന്നുണ്ട് ഇത് ഒരു നിലയാണോ അതോ രണ്ടു നിലയാണോ വീട് ഒരു നില ഓക്കെ പതിനാല് ലക്ഷത്തിനടുത്തു വരും അതേപോലെ സ്ക്വയർഫീറ്റ് എങ്ങനെ എങ്ങനെയാണ് നോക്കുന്നത് ഇപ്പം ഉള്ളതൊരു ആയിരത്തഞ്ഞൂറു സ്ക്വയർഫീറ്റിൻ്റെ ഉണ്ട് അതേപോലെ ഒരായിരം സ്ക്വയർഫീറ്റ് ഇപ്പം രണ്ടു പേരു പറയുമ്പോൾ ഒരായിരം എണ്ണൂറു സ്ക്വയർഫീറ്റിൻ്റെ ഒക്കെയുണ്ട് അപ്പോൾ ഒരു എണ്ണൂറു സ്ക്വയർഫീറ്റിൻ്റെ ഒക്കെ മതിയാവും അല്ലേ രണ്ടു റൂമല്ലേ പറഞ്ഞത് ആ ഓക്കെ അപ്പോൾ രണ്ടു റൂമിനു പറയുമ്പോൾ എണ്ണൂറു സ്ക്വയർഫീറ്റ് പറയുമ്പോൾ ഒരു പത്തു ലക്ഷത്തിൻ്റെ താഴയെ വരുള്ളൂ അതേപോലെ പ്രോപ്പർട്ടി ഇപ്പം എത്ര സെന്റാണ് നോക്കുന്നത് സ്ഥലം മൊത്തമായിട്ട് എക്സ്ട്രാ ഈ പ്രോപ്പർട്ടി പറയുമ്പോൾ വീട് നിക്കണതല്ലാണ്ട് ഒരു നാലു സെൻറ്റും കൂടെ എക്സ്ട്രാ വേണം അതെ അല്ലെ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് റേറ്റ് റേറ്റ് വരുന്നത് ഒരു പത്തുലക്ഷം വീടിനും അതേപോലെ അതു നമുക്ക് അതു നമുക്ക് തീരുമാനിക്കാം വീടു കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കത് കുറച്ചിട്ട് വേണ്ടപോലെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഫീസ് സ്ട്രക്ച്ചർ വരുന്നത് അതിൻ്റെ അതേപോലെ പിന്നെ ആ പിന്നെ കൃഷി ചെയ്യാനുള്ള സ്ഥലമൊന്നും വേണ്ടല്ലോ കൃഷി ചെയ്യാൻ ഉം

പിന്നെ ഉമ്മറത്തു വല്ല ഗാർഡനോ അങ്ങനെന്തെങ്കിലും സെറ്റ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടല്ലേ ഇപ്പോൾ നിലവില് അവിടെ ഒന്നൂല്ല ജസ്റ്റ് അതിൻ്റെ സെറ്റും കൂടി റെഡിയാക്കി തരാം ആ പ്ലോട്ടാണ് അതിനുള്ള സെറ്റ് നിങ്ങൾക്ക് വേണം എന്ന് പറയുവാണെങ്കിൽ അതിനുള്ള സെറ്റും കൂടിയുള്ളത് ശരിയാക്കി തരാം അപ്പോൾ ഓക്കെ അപ്പം എന്നാൽ ഫ്രീ ആവുക ആ വീട് പോയി കാണാൻ നെക്സ്റ്റ് വീക്കിൽ ഓക്കെ നെക്സ്റ്റ് വീക്ക് വെച്ചിട്ട് വന്നു വേണേ നമുക്ക് ഒരുമിച്ച് പോയി കാണാം ഏതു പ്രോപ്പർട്ടിയാണ് ഇഷ്ടപെടുന്നതെന്നൽ നമുക്ക് മേടിക്കാം ഓക്കെ അല്ലേ ഓക്കെ റൈറ്റ്